ഹലോ ഇത് പറപ്പൂരിൽ നിന്നാണു സംസാരിക്കുന്നത് സ്വാലിഹാണ് ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഒരു ഒന്നര മാസത്തോളം വരുന്ന ഒരു ട്രിപ്പ് വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോള് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഏറോപ്ലേനിൻ്റെ ടിക്കറ്റ് നിരക്കുകളും അതിൻ്റെ ഓഫറുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണു വിളിച്ചത് അപ്പോള് അന്വേഷിച്ചിടത്തോളം ഇപ്പോള് സീസൺ ആയതുകൊണ്ട് വളരെ നല്ല റേറ്റിലാണ് നന്നായി അധികം റേറ്റ് ചെയ്യുന്നുണ്ട് എന്നു കേട്ടു അങ്ങനെയാണെങ്കിൽ നമുക്ക് കരിപ്പൂരില്നിന്നു വിമാനം കയറുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപ വരും ഓരോ ടിക്കറ്റിന് എന്നുള്ളതറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞങ്ങള് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിയഞ്ചോളം ആളുകൾ ഒറ്റ ദിവസമായി നമുക്ക് പോവേണ്ടതുണ്ട് അപ്പോള് യാത്ര ഒരേ ടിക്കറ്റിൽ അല്ലെങ്കിൽ ഒരേ പ്ലെയിനിൽ കിട്ടുന്നതിൻ്റെ ലഭ്യതയും അന്വേഷിക്കണമെന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു പല മാർഗ്ഗങ്ങൾ സ്വകരിക്കേണ്ടി വരും അപ്പോള് അതുമായി ബന്ധപ്പെട്ട് ഓഫറുകളെക്കുറിച്ചും അതുപോലെ വിമാനത്തിൻ്റെ ടിക്കറ്റ് റേറ്റിനെ കുുറിച്ചുമൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷനുവേണ്ടി വിളിച്ചതാണ് അപ്പോഴതിൻ്റെ റേറ്റും കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും ഓഫറുകളും ഒക്കെ ഇണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണം ഓക്കെ താങ്ക്യൂ